മലയാള ഭാഷ എന്നുള്ളത് തികച്ചും മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ആ ഭാഷ

മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം കേരളത്തിൽ തന്നെ പല ജില്ലകളിലും വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നത് വ്യത്യസ്ത ശൈലിയിലും വ്യത്യസ്ത രൂപത്തിലുമാണ് സംസാരിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്താണെങ്കിലും അതു പോലെ തന്നെ കാസർഗോഡാണെങ്കിലും തികച്ചും വ്യത്യസ്തമായ ലാംഗ്വേജാണ് കാസർഗോഡെന്ന് പറയുന്നത് ഒരു കന്നഡ ലാംഗ്വേജുമായിട്ട് ഒരു കണക്ഷനുള്ള രൂപത്തിലാണ് അവരുടെ സംസാര ശൈലി അതുപോലെ തന്നെ കണ്ണൂരിലാണെങ്കിലും തികച്ചും മലയാള ഭാഷയോട് തീർത്തും ഒരു ബന്ധമില്ലാത്ത പല രൂപത്തിലുള്ള ലാംഗ്വേജുകളും അതായത് യഥാർത്ഥ മലയാളവുമായി ബന്ധമില്ലാത്ത പല ലാംഗ്വേജുകളും അവരിൽ നിന്നും കാണാൻ സാധിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ പല വാക്കുകളും എല്ലാം ഉൾക്കൊണ്ട ഒരു ഭാഷയാണ് മലയാളം എന്നുള്ളത് മലയാളത്തിൽ ധാരാളം കവികൾ കവികളും കവിതകളും അതുപോലെ തന്നെ പാട്ടുകളും നല്ല രസമുള്ള മൊത്തിൽ ലോകത്തിൽ തന്നെ വയറലായ പല പാട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും അത് മലയാളം ഭാഷയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ മലയാളം നമ്മുടെ കേരളത്തിലെ അടിഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അതായത് തിരുവന്തപുരം ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും അവിടെയും ചില വൈവിധ്യമാർന്ന ഭാഷകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ള മലയാളത്തിലെ ശൈലിയാണ് അവർ ഉപയോഗി ഉപയോഗിച്ച് വരുന്നത് അങ്ങനെ മലയാളം ഭാഷ പല ജില്ലകളിലും പല രൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും മലയാളത്തിന് തനതായ ഒരു തനിമയുണ്ട് ആ തനിമയാണ് എല്ലാവരും എഴുതാനുപയോഗിക്കുന്നത് അവർ സംസാര സംസാരത്തിനായി മറ്റു ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർ എഴുതാനോ ഉപയോഗിക്കുന്നത് സാധാരണ പ്യുവർ മലയാളമാണ് അത് മലയാളം ഭാഷയുടെ ഒരു പ്രത്യേകത ഒരു പ്രത്യേക സവിശേഷതയായി നമുക്ക് എണ്ണി കണക്കാക്കാൻ സാധിക്കും കാരണം മലയാളം എന്നുള്ളത് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജായി മാറാൻ പോകുകയാണ് മലയാളത്തിന് അത്ര മലയാളത്തിന് ഭാഷ ഉത്ഭവിച്ചിട്ട് അത്ര കൂടുതൽ കാലമൊന്നുമായിട്ടില്ലെങ്കിലും അത് ഇപ്പം ഇപ്പോൾ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മലയാളികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്